തീർച്ചയായും ഞാൻ യോഗ ക്ലാസ്സുകളിൽ ചേർന്നിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് യോഗ എന്ന് പറയുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽത്തിന് വളരേ അധികം നല്ലതാണ് യോഗ ചെയ്യുന്നത് യോഗയില് കുറെ മുദ്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യ നമസ്ക്കാരം പിന്നെ നമ്മളുടെ ഹെൽത്തിനോരോ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടുള്ള കുറെ യോഗകളുണ്ട് പിന്നെ യോഗ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്നേ ഞാൻ പറയുകയുള്ളു കാരണം അത് നമ്മുടെ ശരീരത്തിന് എന്ത് അസുഖത്തിനേയുമാണെങ്കിൽ കാണന്നൊണ്ടങ്കിൽ യോഗ കാരണം കുറെ അസുഖങ്ങള് മാറാൻ ചാൻസ് കൂടലുള്ളൊരു എക്സസൈസാണ് യോഗ എന്ന് പറയുന്നത് പിന്നെ രാവിലെ എണീറ്റ് മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ അങ്ങനെ ഒക്കെ ഉള്ളത് യോഗേൻ്റെ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ അപ്പം യോഗ ചെയ്യുന്നത് എന്തും കൊണ്ടും നല്ലതാണന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അതില് കുറെ ബോഡി നല്ല ഫ്ലക്സിബിളായിട്ടിരിക്കാനും യോഗ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യോഗ ക്ലാസ്സില് പങ്കെടുത്തതോടു കൂടി എനിക്ക് നല്ല ഫ്ലെക്സിബിൽ ആകുന്നുണ്ട് എൻ്റെ ബോഡി എപ്പോഴും പിന്നെ അങ്ങനെ ഉള്ള കുറെ നല്ല നല്ല കാര്യങ്ങള് യോഗ ചെയ്യുമ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പം നമ്മളുടെ മൈൻറ്റൊന്ന് ക്ലിയറാവും മൈൻറ്റ് ക്ലിയറാവുന്നതോടു കൂടി നമുക്ക് അന്നത്തെ ദിവസം നല്ല രീതിക്കാണ് പോവുന്നത് അപ്പം യോഗ ചെയ്യുന്നത് എന്ത് കൊണ്ടും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്